രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഒൻപത് രണ്ട് ആറ് രണ്ടായിരത്തി പതിനൊന്ന്